എടാ എൻ്റെ വീട്ടിൽ ഒരു ഫങ്ക്ഷൻ നടക്കുന്നുണ്ട് ചേട്ടൻ്റെ കല്യാണം ആണ് അപ്പോൾ അതിൻ്റെ ഫങ്ക്ഷൻ ആണ് അപ്പോൾ എറണാകുളത്തുനിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി കുറച്ച് പഴയ മോഡൽ വീട് ഇല്ലേ അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ വീട് നോക്കുന്നുണ്ട് സ്റ്റേ ചെയ്യാൻ ആയിട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒന്നും റെഡി ആയിട്ടില്ല ആ അപ്പോൾ എത്ര ആൾക്കാർ ഉണ്ടെന്ന് വെച്ചാൽ ഒരു അഞ്ച് ആറ് പേർ ഉണ്ടാവുമായിരിക്കും

ക്യാഷ് ഒന്നും സീൻ അല്ല നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ

ആ ഒരു രണ്ട് ദിവസത്തേക്ക് വേണ്ടിയായിരുന്നു ആ ആ ഓക്കേ പരിപാടി അടുത്ത ആഴ്ച

ആ പറയാം സെറ്റ് അല്ലേ ആ ഞാൻ വരാം ഞാൻ വരാം ആ വരാം

ആ ഫ്രണ്ട്സ് ആണ് അവൻ്റെ ഫ്രണ്ട്സ് ആണ് ആ ഉണ്ട്

നീ ഒന്ന് അറേഞ്ച് ചെയ്യ്

ആ ആൾ കുറേ അനേഷിച്ചു അവൻ തന്നെ നോക്കിയായിരുന്നു കുറേ പക്ഷേ ഒന്നും അങ്ങ് സെറ്റ് ആവുന്നില്ല ആ എടാ ഓക്കേ